അതേല്ലൊ ആ ആ ആ ആ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ആ കൃഷിക്ക് വേണ്ടിയാണോ ഇതിനി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണോ കെട്ടിടം വെക്കാൻ വല്ലതും ആണോ ആ ആ അങ്ങനെയാലേ ഞാൻ ഓർത്തു വല്ല ബി അല്ല ബിസിനസ് ബിസി ബിസിനസ് ബിസിനസിനു വേണ്ടക്കെയാണോ വാണിജ്യ സൗകര്യത്തിനാണോ എന്ന് ആണോന്നറിയാൻ ആ ആ അപ്പോൾ ആ ടൗണിനോട് ചേർന്ന് വേ ടൗൺ ടൗണിനോട് ചേർന്ന് വേണം അല്ലെ ആ റോഡും ആ റോഡ് വെള്ളവും വേണ്ടേ വെള്ളം സൗകര്യം വേണ്ടേ ആ കറണ്ടിൻ്റെയോ

ആ അത് അര അര ഏക്കർ മതി അല്ലേ ആ പല ആ ആ ഒരു ആ വഴി സൗകര്യം വഴി സൗകര്യം ഉണ്ട് ഉണ്ട് ഒരൂ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ സ്ഥലം കൊടുക്കാനുണ്ട് അത് കൂടുതൽ കൂടുതൽ സ്ഥലം എടുക്കുകയാണെങ്കിൽ വില കുറയും ചെറിയ പ്ലോട്ട് ആകുമ്പോൾ വില കൂടും കൂടും മ്മ് ആ ആ അങ്ങനെയുള്ള സ്ഥലം ഉണ്ട് കൊടുക്കാൻ കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ട് ഉണ്ട് എല്ലാ സൗകര്യവും ആ ഉണ്ട് വെള്ളം ഒക്കെ ഉണ്ട് സെൻ്റ് കുറച്ച് എന്നാ കൂടുതൽ സ്ഥലം എടുക്കുവാണെങ്കിൽ റേറ്റ് കുറയും കുറച്ച് ആയത് കൊണ്ട് സെന്റിന് ഒരൂ ഒരു ലക്ഷം രൂപ വെച്ചൊക്കെ ആകും

ഓക്കേ കിട്ടാനുണ്ട് കിട്ടാനുണ്ട് ആ ഓക്കെ ഓക്കെ മ്മ് വഴിയുണ്ടാകും കിണർ അല്ല ആ സ്ഥലത്തിപ്പോൾ കിണറില്ല കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ആ ഓക്കെ ഓക്കെ ഇല്ല കര കര പാടത്തിൽ നിന്നൊക്കെ വീട് പാടത്തിൽ ഒന്നും വീട് വെക്കാൻ സർക്കാർ ര് സമ്മതിക്കില്ലല്ലോ മ്മ് പ്രത്യേക ആ അങ്ങ അങ്ങനെ ഉള്ള അത് പത്ത് സെൻറ്റൊക്കെ കൂടുതൽ കിട്ടുകയില്ല മ്മ് ആ വീട് വെക്കാൻ പത്ത് സെൻ്റ് വരെ പരമാവധി പട്ടയമുള്ള സ്ഥലം അല്ലെങ്കിൽ പോക്കൂവരവ് നടത്താൻ പറ്റില്ലല്ലൊ സ്വന്തം പേരിലാക്കാൻ പറ്റില്ലല്ലൊ അല്ല അതിനിപ്പോൾ എല്ലാ പട്ടയത്തിനും വാല്യൂ ഒക്കെ ശരിയാണെന്ന് പല പട്ടയം എല്ലാം ശരി ആണ് ആ കുഴപ്പം ഒന്നും ഇല്ല

എപ്പോഴാണ് ചേട്ടന് ബന്ധപ്പെടാൻ പറ്റുന്നത് നാളെ ഒരു ഉ നാളെ വേറെ ഒന്ന് രണ്ട് പ്ലോട്ട് നോക്കാൻ വേറെ ആൾക്കാർ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഉച്ച കഴിയുമ്പോൾ ആയാലോ ഉച്ച കഴിയുമ്പോൾ പോരുന്നതിന് ഒരു അര മണിക്കൂർ മുൻപ് ഒന്ന് വിളിച്ച് ഈ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി പാറത്തോട് ടൗണിൽ കണ്ടേക്കാം അത് ഓക്കെ കാലത്തെ വേറെ ഒന്ന് വേ കാലത്ത് വേറെ ഒന്ന് രണ്ടു പേരെ വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് നേരത്തെ പറഞ്ഞായിരുന്നു

അല്ല വിഷയമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പാ എന്തെങ്കിലും ലോണിൻ്റെ കാര്യമാണോ ലോൺ എടുത്തിട്ടുള്ളതാണോ എന്ന്